ഹലോ ഞാൻ മേടിച്ച പാവാട എനിക്കത് ഒട്ടും പറ്റത്തില്ല കേട്ടോ എനിക്കാണെങ്കിൽ അതു വണ്ണവുമില്ല ഇറക്കവുമില്ല ഞാനാണേ ഇല്ലാത്ത പൈസ കൊടുത്ത് മേടിക്കുകയും ചെയ്തു പുള്ളിക്കാരന് കണ്ട ഇഷ്ടപ്പെടത്തില്ല അതു തന്നെ ഞാൻ തിരിച്ചയക്കട്ടെ അല്ലാതെ എനിക്കൊരു രക്ഷയില്ല അയ്യോ ഞാൻ പറഞ്ഞ കളറുമല്ല നിങ്ങളെനിക്ക് തന്നിരിക്കുന്നത് അതിനു ചെറിയ ഡാമേജുമുണ്ട് ഉള്ള ഞാനത് തിരിച്ചയക്കാൻ പോകാണേ കാരണം എന്നായെന്നു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കത് ഇടാനായിട്ടു പറ്റത്തില്ല എൻ്റെ സാരിക്ക് ചേരുന്ന കളറുമല്ല ആ പാവാട ഞാനാ സാരിക്ക് ചേരുന്ന കളർ വെച്ചാണ് നിങ്ങളോട് മെറൂൺ കളർ പറഞ്ഞത് ആ മെറൂൺ കളർ എനിക്ക് പറ്റത്തുള്ളൂ ആ സാരിക്ക് അല്ലാതെ വേറേതെങ്കിലും കളറിട്ടു കഴിഞ്ഞാൽ അതു ശരിയാകത്തില്ല കാരണം എനിക്ക് പാവാടയോട് അത്ര ഇഷ്ടമില്ല ആ പാവാട എനിക്ക് അതുമല്ല അതു ഡാമേജ് എനിക്ക് പറ്റത്തുമില്ല ഇറക്കം ഒട്ടുമില്ല അതു നിങ്ങൾ മാറ്റി തരുമോ അതെന്താണെന്നു വെച്ചാൽ നിങ്ങളത് കൈകാര്യം ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ പൈസ ഞാനിത് അങ്ങോട്ടു തിരിച്ചയച്ചേക്കാം അതെനിക്കെൻ്റെ പൈസ ഇങ്ങു തരുമോ എന്തെങ്കിലും ചെയ്യണം ഞാൻ ഇങ്ങനെ നിങ്ങളുടെ ഇവിടെ നിന്നു മേടിച്ച നല്ല ഇതാണ് ഓൺലൈനിൽ കൂടി മേടിച്ച നല്ല ഞങ്ങളുടെ അടുത്തുള്ളൊരു കൊച്ചു പറഞ്ഞു അതു കൊണ്ടാണ് ഞാനത് ഓൺലൈനും വഴി നിങ്ങൾക്ക് തന്നെ നിങ്ങളോടു തന്നെ ഞാൻ മേടിച്ചത് പക്ഷേ എനിക്കത് ഒട്ടും ഇറക്കവുമില്ല അത് പറ്റ വണ്ണ അരവണ്ണമോ കുറവാണ് അത് ആകുമ്പോഴത്തേനും അത് എനിക്ക് റെഡി ആക്കി തരണം

അതു കാണുമ്പോഴത്തേനും പിള്ളേര് കണ്ടിട്ട് എന്നെ വഴക്കു പറഞ്ഞു യ്യോ ഇതെന്നാ കുഞ്ഞു പാവാടയാണമ്മേ ഇത് അമ്മക്ക് എങ്ങനെ ചേരാനായിട്ടാണ് അമ്മ അളവെല്ലാം അവരോടു പറഞ്ഞു കൊടുത്തതല്ലേ എന്നിട്ടാണോ ഇത്ര ഇതാ ഓ ഓൺലൈനിൽ കൂടി ബുക്ക് ചെയ്താൽ ഉള്ള കുഴപ്പമെന്നൊക്കെ പിള്ളേര് എന്നോടു പറഞ്ഞു കടയിൽ പോയി മേടിച്ചാൽ പോരായിരുന്നോ പക്ഷെ എനിക്ക് നിങ്ങളുടെ ആ ഞങ്ങളുടെ അടുത്ത് പെങ്കൊച്ച് മേടിച്ചത് അതു കണ്ടപ്പോൾ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടേ ഇഷ്ടപ്പെട്ടത് കണ്ടു കൊണ്ട് ഞാനതങ്ങ് ഓൺലൈനിൽ കൂടി അങ്ങ് ബുക്ക് ചെയ്തതാണ് അതെന്നായെന്നു ചോദിച്ചാൽ നിങ്ങളത് തീരുമാനിക്ക് കളർ മെറൂൺ കളർ അല്ലെങ്കിലും പോട്ട് സാരമില്ല അതു ഞാനങ്ങ് എടുത്തോളാമായിരുന്നു പക്ഷേ ഇതിന് ഒട്ടു ഇറക്കവും ഇല്ല എന്നാണ് ഒന്നുമില്ല പിന്നെ അതുമല്ലാതെ ഡാമേജുണ്ട് ചെറിയ ചെറിയ ഇത് കളറിങ്ങനെ പോയതായിട്ടുള്ള ചെറിയ പാടുകളുണ്ട് അതു കൂടി ഉള്ളതു കൊണ്ട് നമുക്ക് അങ്ങോട്ടു പറ്റത്തില്ല അതു ഞാനെന്നാ തിരിച്ചങ്ങ് അയക്കുവാണേ അപ്പോൾ എൻ്റെ പൈസ തരുമോ അതെന്താണെന്നു വെച്ചാൽ നിങ്ങൾ എനിക്ക് അതിനൊരു വേറെ നല്ല ഇതായിട്ടുള്ള എൻ്റെ ഞാൻ ത്രിപ്പിൾ എക്സലല്ലായിരുന്നോ പറഞ്ഞിരുന്നത് ഇത് എക്സെലാണ് എനിക്ക് നിങ്ങൾ അയച്ചു തന്നിരിക്കുന്നത് എക്സെലെനിക്കു പറ്റത്തില്ല ത്രിബിൾ എക്സെലായിരുന്നു എനിക്കു വേണ്ടത് അതു കാരണത്തേനും ഒട്ടും പറ്റത്തില്ല ഞാനിതു തിരിച്ചയക്കുവാ കേട്ടോ